ഹലോ ട്രാവലേജൻസി അല്ലെ ആ ഞങ്ങള് എറണാകുളത്താണെ വയനാടേക്ക് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളില് ട്രിപ്പ് വരണമോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോള് അതിനെപ്പറ്റി അറിയാൻവേണ്ടി

ആ അതേല്ലേ ഈ ഏപ്രിൽ ആയിരിക്കും

ആ വിഷു കഴിഞ്ഞിട്ട്

അതെ അതെ ഓൾ വയനാടാണ്

അതെ അല്ലേ ഞങ്ങള് ട്രെയ്നിലാണേ വരുന്നേ അപ്പോള്

അതേലെ ആ ഓക്കെ ഡദകോബ ഓക്കെ ഡദകോബ ആ ഏയ് പ്രശ്നമില്ല അ അ ഫാമിലി ആയിട്ടാ ആ അധികം ചെറിയ കുട്ടികളില്ല

ആ ആയ്ക്കോട്ടെ ആ ഓക്കെ ഓ ആ കൺഫേം ചെയ്യാം കൺഫേം ചെയ്യാം ഒരു ഏപ്രിൽ ഇരുപത്തിയഞ്ച് ആ ടൈമില് ഓക്കെ മ്മ്